ഇപ്പം സമീപത്ത് എ ഏതെങ്കിലും ആർട്ട് ആൻ സപ്ലൈ സ്റ്റോർ ഉണ്ടോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ മാനന്തവാടിയിൽ ഇസ്മയിൽ സ്റ്റോറില് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടൊക്കെ സാധനനങ്ങളൊക്കെ കിട്ടാറുണ്ട് ഇപ്പോൾ ബോട്ടിൽ ആർട്ടാണെങ്കിൽ ബോട്ടിൽ ആർട്ടിനുള്ള കാര്യങ്ങൾ സാനങ്ങളൊക്കെ കിട്ടാനുണ്ട് നമുക്ക് പെയ്ൻറ് അതിനുള്ള വരക്കുന്ന സാധനങ്ങൾ പല സാധനങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് കിട്ടാനുണ്ട് പിന്നെ വേറെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പല രീതിയിലുള്ള കരകൗശല വസ്തുക്കൾ കാര്യങ്ങളക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ നമുക്ക് ഇപ്പോൾ കിട്ടാനിണ്ട് അപ്പോൾ ഇതിനക്കെ വില ലേശം കൂടുതലാണെങ്കിലും വലിയ കുഴപ്പമിലാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ പറ്റും പിന്നെ എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ കരകൗശല വസ്തുക്കൾന്നക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുക്കിപ്പോൾ നമ്മുടെ റൂമിൽ ഡെക്കറേഷൻ ചെയ്യാനും പല രീതിയിലുള്ള പൂക്കൾ പിന്നെ ബോട്ടില ബോട്ടിലികൾബോട്ടിലികളില് നമ്മള് ചിത്രം വരച്ച് വെയ്ക്കന്നത് പിന്നെ മീന് മീനിനക്കെ ഉണ്ടാക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്ന് ചെയ്യൂലെ അതൊക്കെയാണ് മെയിനായിട്ട് കരകൗശല വസ്തുക്കൾന്നക്കെ പറയുന്നത് ഇതക്കെ നമ്മുക്കിണ്ടാക്കാനുള്ള സാധനങ്ങൾ നമുക്ക് സ്റ്റേഷനറി സ്റ്റോറിലക്കെ കിട്ടാറിണ്ട് എല്ലാ സ്റ്റേഷനറി സ്റ്റോറിലൊന്നും ഉണ്ടാവില്ല നമുക്ക് ഇപ്പോൾ മാനന്തവാടിൽ ഇസ്മയിൽ സ്റ്റോറാണ് അതിന് ഇവിടുള്ള ഒരു സ്റ്റോറിന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ